റെസ്റ്റോറന്റല്ലേ ഡെലിവറി ചെയ്യുന്ന ബോയി എന്താ ഫോൺ എടുക്കുന്നില്ല കുറെ നേരമായി ഞാൻ വിളിക്കുന്നു എത്ര നേരം കൊണ്ട് വിളിക്കുകയാണ് ഫോണെടുക്കുന്നില്ല അതെന്താണ് അങ്ങനെ എത്ര നേരമായി ഓഡർ ചെയ്തിട്ട് ഒരിതിന് ചിക്കൻ ബിരിയാണി ഓഡർ ചെയ്തതല്ലേ ഇപ്പം സമയം കഴിഞ്ഞല്ലൊ ഫോൺ വിളിച്ചിട്ടാണെങ്കിൽ എടുക്കുന്നുമില്ല നിങ്ങളെന്താണ് ഇങ്ങനെ ഒരു ഉത്തരവാദിത്തമില്ലാതെ കളിക്കുന്നത് അങ്ങനത്തെ ആളെയൊക്കെയാണോ ഡെലിവറി ബോയിയായിട്ട് വെക്കുക തീരെ മോശമാട്ടോ നിങ്ങളുടെ ഇത് നിങ്ങളുടെ സേവനം ഇഷ്ടപ്പെടുന്നില്ല കുറെ നേരമായി വിളിക്കുന്നു ഇവിടെ പിള്ളേരാണെങ്കില് വിശന്നിട്ട് കരയാൻ തുടങ്ങുന്നു എത്ര നേരായി ഇത് ഓഡർ ചെയ്തിട്ട് ഫോൺ വിളിച്ചാണെങ്കിൽ എടുക്കുന്നില്ല ഇതെന്താണ് ഇങ്ങനെ ഇങ്ങനെ ഒരു ഉത്തരവാദിത്തമില്ലാതെ പെരുമാറിയാൽ എങ്ങനെയാണ് ശരിയാവുക ഒന്നുല്ലെങ്കില് എവിടെയെങ്കിലും താമസിച്ചു പോയിട്ടുമുണ്ടെങ്കില് ഫോണെടുത്തോണ് പറയുക ഇഇ ഇന്ന കാരണം കൊണ്ടൊന്നു താമസിച്ചുപോയതാ ക്ഷമിക്കണമെന്നു പറഞ്ഞിട്ട് ഇത് ഫോണെടുക്കുന്നുമില്ല ഒന്നും പറയുന്നുമില്ല എന്ത ചെയ്യുക എത്ര നേരമാണ് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിക്കുക നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ ഇല്ലെന്ന് പറഞ്ഞാൽ പോരെ എന്നാ ശരി ഓക്കെ